ഇരുപത്തി ഏഴ് അഞ്ച് രണ്ടായിരത്തഞ്ച് പതിനേഴ് നാല് രണ്ടായിരത്തഞ്ച് എട്ട് അഞ്ച് രണ്ടായിരത്തി എട്ട് ഏഴ് നാല് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ട് ഇരുപത്തി മൂന്ന് അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന്